ഹലോ ഫാസ്റ്റ്ട്രാക്ക് ഏജൻസി അല്ലേ എന്റെ പേര് അഫ്സൽ ഞാൻ ഇന്നലെ കെ എൽ ഫോർട്ടി നെയൻ എം വൺ ടു വൺ ത്രീ എന്നാൽ വണ്ടിയില് സഞ്ചാരിക്കുകയുണ്ടായി തൃശ്ശൂരിൽ നിന്നു പാലക്കാടിലേക്ക് അപ്പോൾ നമുക്ക് ഭയങ്കര മോശം അനുഭവമാണ് നിങ്ങളെ അടുത്ത് നിന്ന് ഉണ്ടായത് അതായത് വണ്ടി പഞ്ചറായി പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡ്രൈവർ ശരിയല്ല ഡ്രൈവർ എന്തോ മദ്യപിച്ചിട്ടുള്ളതു പോലെ നമുക്ക് തോന്നിയത് സോ നിങ്ങൾ അതിന് വേണ്ടതായ തക്കതായ കാരണങ്ങൾ നിങ്ങൾ എടുക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്